വീടുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അവനവൻ്റെ കടമകൾ തന്നെയാണ് പക്ഷെ നമ്മളത് വളരെ മലിനമായി കിടക്കുമ്പോൾ നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യവും തന്നെയാണ് കാരണം ഒരുപാട് ഈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ വന്നിട്ടാണ് ഈ കൊതുക് അങ്ങനെയുള്ള ഒരുപാട് പ്രാണികൾ മുട്ടയിട്ട് പെരുകുന്നതും വളരെ ശുചിത്വത്തിന് എതിരെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് രോഗപ്രാണി രോഗാണുക്കളും രോഗപ്രാണികളും വളരെ അധികം എണ്ണി എണ്ണി എണ്ണി എണ്ണി എറങ്ങി വരുന്നതും നമുക്ക് ഒരുപാട് രോഗങ്ങൾ തരുന്നതും അപ്പോൾ നമ്മള് ഒരുപാട് നടപടികൾ എടുക്കേണ്ടതാരുന്നു ഇപ്പോൾ നാട്ടിലും ഒരുപാട് മേഖലകൾ ഉണ്ട് ഹരിത പ്രവർത്തനംന്ന് പറഞ്ഞിട്ടും ഹരിത മേഖല എന്ന് പറഞ്ഞിട്ടും തൊഴിലുറപ്പ് എന്ന് പറഞ്ഞിട്ടും വൃത്തിയാക്കുന്ന ഒരുപാട് മേഖലകൾ ഉണ്ട് പക്ഷെ ഇതൊക്കെ നാം തന്നെ കണ്ടറിഞ്ഞ് നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ളത് നമ്മള് തന്നെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മള് അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ മറ്റുള്ളവർ ചെയ്യട്ടെ മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് തന്നെ നിൽക്കുന്നു ഇതിന് തക്കതായ ഒരു നടപടി ഈ നമ്മൾ സ്വീകരിക്കുന്ന വരെയാണ് നമ്മള് ഇങ്ങനെ നടക്കുകയുള്ളു പക്ഷെ ഒരു നിയമം വന്ന നമ്മളത് ചെയ്യും പക്ഷെ നിയമം വരുന്നതിന് മുന്നെ ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഒരുപാട് നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് വൃത്തിയാക്കുന്ന നമ്മൾ തന്നെ വൃത്തിയാക്കണം പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ നശിപ്പിക്കണം പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കരുത് അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമായ ഒരു കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടേങ്കിലും കണ്ടാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയും അത് തുടച്ച് നീക്കുകയും ചെയ്യുക തന്നെ വേണം അതിന് മറ്റുള്ളവരെ കാത്ത് നിന്നിട്ടോ മറ്റ് മേഖലകളെ കാത്ത് നിന്നിട്ടോ ഒരു കാര്യം ഇല്ല നമ്മൾ തന്നെ സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒന്ന് തന്നെയാണ് പിന്നെ നമ്മൾ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക എന്നാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യവും നമുക്ക് അതിനനുസരിച്ചുള്ള രോഗമില്ലായ്മയും കിട്ടും അത്കൊണ്ട് എല്ലാവരും സ്വന്തമായി ഇറങ്ങി വൃത്തിയാക്കി വീടുകൾ സംരക്ഷിക്കേണ്ടതാണ്